നീന്തൽ ഒര് പ്രത്യേകം ഒര് വ്യായാമ മുറയാണ് അത് പലിശീലിക്കുന്നത് ഏറ്റവും മറ്റേതൊര് വ്യായാമ മുറയിനേലും പോലെ നല്ലത് തന്നെയാണ് നീന്തലിനായിട്ട് എപ്പഴും ഒന്നെങ്കിൽ രാവിലത്തെ സമയത്ത് അതായത് ഭക്ഷണം അധികം കഴിക്കുന്നതിനൊക്കെ മുമ്പ് രാവിലത്തെ സമയത്ത് അല്ലെങ്കിൽ പിന്നെ വൈകുന്നേര സമയത്ത് ആ ഒരു സമയത്താണ് അതിൻ്റെ ഒര് പ്രാക്ടീസ് ആ ഒരു വ്യായാമം ഒക്കെ ചെയ്യേണ്ടത് പ്രത്യേകിച്ച് അതിന് നീന്തലിനായിട്ട് പ്രത്യേകിച്ച് അങ്ങനെ ഭക്ഷണ ക്രമങ്ങളൊന്നും ചെയ്യാറില്ല മിക്കവാറും എല്ലാവരും എംപ്റ്റി പിന്നെ വയറോട് കൂടി തന്നെയായിരിക്കും നീന്തലൊക്കെ ചെയ്യാറുള്ളത് പിന്നെ നാരങ്ങ മുറിച്ച ചെറു നാരങ്ങ മുറിച്ച് ഒര് നാവുണങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടി കടിക്കുന്നത് പലപ്പഴും നല്ലതാണ് അല്ലാതെ മറ്റ് ഇതൊന്നും ആവശ്യമില്ല നീന്തലിന് പിന്നെ ഇന്ന ആൾക്കാർടെ രീതി അനുസരിച്ചിട്ട് ലൈറ്റായിട്ടുള്ള എന്തെങ്കിലും ഓട്സോ ആ രീതിയിലുള്ള എന്തെങ്കിലും ഒക്കെ ഫുഡുകളോ ഒക്കെ കഴിക്കുന്നത് നല്ലതാണ് അധികമായി ഭക്ഷണം കഴിച്ചുകൊണ്ട് നമുക്ക് നീന്താൻ സാധിക്കില്ല